ബാങ്കിന്റെ നയങ്ങളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം എന്നാ അതിന്റെ ബാങ്ക്കളുടെ പ്രവര്ത്തന രീതികളും ഒക്കെ ഒത്തിരി ചേഞ്ചസ് മിക്കവാറും വരാറുണ്ട് അപ്പം അത് ആളുകള്ക്ക് മനസ്സിലാകാന് വേണ്ടി ഇന്റെര്നെറ്റ് അതുപോലെ തന്നെ പത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കിയെടുക്കാന് സാധിക്കും പത്രങ്ങളിലെ എപ്പോഴും ബിസിനസ് പേജെന്ന് പറഞ്ഞൊരു പേജ് തന്നെയുണ്ട് ആ പേജിലൂടെ ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് ബാങ്കിംഗ് മേഖലയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് തീര്ച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാന് സാധിക്കും ഓരോ ഗവണ്മെന്റിന്റെ നയം ഗവണ്മെന്റ് മാറുന്നതനുസരിച്ച് ബാങ്ക് നയങ്ങളൊക്കെ മാറാം അല്ലെങ്കില് ലോകത്ത് നടക്കുന്ന കാര്യങ്ങള്ക്കനുസരിച്ച് ലോക മാറ്റങ്ങളനുസരിച്ച് നമ്മുടെ ബാങ്കിംഗ് നയങ്ങളിലൊക്കെ കാരണം മറ്റ് രാജ്യങ്ങളില് ഉള്ള ബാങ്ക്കളുടെ ആ ഒരു പ്രവര്ത്തന രീതിയിലേക്ക് നമ്മൾ ചിലപ്പം പോവാറുണ്ട് അപ്പം അങ്ങനെ മാറ്റങ്ങളെപ്പോഴും വന്ന് കൊണ്ടിരിക്കുവാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവാണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ബാങ്കിപ്പോവാൻ ഒക്കത്തില്ല ഇപ്പം ബാങ്കിലേക്ക് പോകുന്ന ആളുകള് വളരെ ചുരുക്കമാണ് ബിസിനസ് നടത്തുന്ന ആളുകള് അങ്ങനെക്കെയുള്ള ആളുകള് മാത്രം ഒക്കെ അത്യാവശ്യം ലോണെടുക്കാനും മറ്റ് കാര്യങ്ങളും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള്ക്ക് തീര്ച്ചയായിട്ടും ബാങ്കിലേക്ക് പോകണം അല്ലാതെ പണവും എടുക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഇപ്പം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പണം മറ്റ് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ബാങ്കിംഗ് ബാങ്ക്കളിലേക്ക് നമ്മൾ കൂടുതലായിട്ടും കയറി ചെല്ലുന്നില്ല നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ടോ അല്ലെങ്കില് നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ മനസിലാക്കുന്നത് അപ്പം അങ്ങനെ മനസിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കില് തീര്ച്ചയായിട്ടും ഇന്റെര്നെറ്റ് അതുപോലെ പത്രങ്ങളൊക്കെ തീര്ച്ചയായിട്ടും നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിലതിലൂടെ നമ്മൾ അത് നമ്മൾ വായിച്ച് അല്ലെങ്കിൽ ഇന്റെര്നെറ്റില് നമ്മൾ നോക്കി ഇപ്പോഴിതിലുള്ള ചേഞ്ചസും ഒക്കെ മനസ്സിലാക്കിയെടുത്തെങ്കില് മാത്രമേ നമുക്ക് ബാങ്കിന്റെ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാന് സാധിക്കത്തൊള്ളു അങ്ങനെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തില്ലെങ്കില് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് പോവും കാരണം എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാല് നമ്മൾ ചേഞ്ച് മനസിലാകാതെ നമ്മൾ ബാങ്ക്കളില് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമുക്ക് സാധിച്ചുവെന്ന് വരത്തില്ല അപ്പം തീര്ച്ചയായിട്ടും ബാങ്ക്കളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെയോ അല്ലെങ്കില് ഇന്റെര്നെറ്റിലൂടെയോ അല്ലെങ്കില് മറ്റേതെങ്കിലും എന്നാ സോഷ്യല് മീഡിയയിലൂടെയോ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തെങ്കില് മാത്രമേ നമുക്ക് തീര്ച്ചയായിട്ടും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കാനും അല്ലെങ്കില് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് നമ്മുടെ സാമ്പത്തികമായിട്ട് കാര്യങ്ങളിലൊക്കെ ഒരു ഭദ്രത വരുത്താൻ സാധിക്കത്തൊള്ളു അതുപോലെ തന്നെ ഇന്ന് ബാങ്കിംഗ് മേഖലകളിലൊക്കെ ഒത്തിരി ഇന്വെസ്റ്റ്മെന്റ്റും കാര്യങ്ങളും ഉണ്ട് ലോണെടുക്കുന്നത് മാത്രമല്ല ഇന്വെസ്റ്റ്മെന്റ്റും ഏതൊക്കെ തരങ്ങളില് നമുക്കിന്വെസ്റ്റ് ചെയ്യാം അപ്പം ഇപ്പോഴത്തെ റേറ്റ്കൾ അതിന്റെ റേറ്റ് ഓഫ് ഇന്റെറസ്റ്റെന്തുവാണ് അല്ലെങ്കില് മറ്റ് കാര്യങ്ങളൊക്കെ എന്തുവാണ് എന്തരെക്കെ കാര്യങ്ങൾ നമ്മളതിന് വേണ്ടി ചെയ്തിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണമെങ്കില് തീര്ച്ചയായിട്ടും ഇതുപോലുള്ള അറിവുകള് നമുക്ക് തീര്ച്ചയായിട്ടും ലഭിച്ചിരിക്കണം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീര്ച്ചയായിട്ടും നമ്മൾ ആ ഒരു രീതിയിലേക്കൊത്തിരി സഹായിക്കാറും